ഹലോ ഞാനേ ഒരു അരമണിക്കൂർ മുന്നെ ഒരു ക്യാബ് അവിടെനിന്ന് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വിളിച്ചത് എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തീർത്തും നിരാശാജനകമായ ഒരു സർവീസാണ് നിങ്ങളുടെ കൈയിൽ നിന്ന് എനിക്ക് ഇപ്പം രണ്ടാമത്തെ പ്രവശ്യമാണ് എൻ്റെ അനുഭവം ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ ഒരു സാധനം പോകട്ടെ പങ്ചുവാലിറ്റി നിങ്ങൾക്ക് ഇല്ല എന്ന് എനിക്ക് അറിയാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിളിച്ച് നമ്മൾ ഒരു അത്യ ഞാൻ അത്രയും അത്യാവശ്യം എന്ന് പറഞ്ഞ് കാരണം എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക് പിന്നെ മുംബൈക്ക് പോകേണ്ടതാണ് അത്യാവശ്യമാണ് ആ ഫ്ലൈറ്റ് മിസ്സാവരുത് താങ്കൾ വേഗം വരണം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ആ പിന്നെ മീൻസ് സ്റ്റാഫ് മീൻസ് ഡ്രൈവർ അദ്ദേഹം എന്നോട് പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് എത്തും സാറെ എന്തായാലും എത്തും എന്ന് പറഞ്ഞ് പക്ഷെ അയാൾ എന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ അത്രയും ഇമ്പോർട്ടന്റായ ആ മീറ്റിംഗ് മിസ്സായി ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ വേറെ ഒരു നിവൃത്തിയില്ല അത്രയും അർജന്റായത് കൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റിന് പോകാൻ ശ്രമിച്ചത് അപ്പോൾ ഇതിനുള്ള കാരണക്കാർ നിങ്ങളാണ് നിങ്ങളാണ് ഇതിൻ്റെ റെസ്പോൺസിബിളിറ്റി ഒന്നില്ലെങ്കിൽ എനിക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഞാൻ കോടതിയിൽ പോകാനാണ് ഞാൻ ആലോചിക്കുന്നത്